എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ട്ടപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നത് ബിരിയാണിയാണ് അത് കാരണം എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക നമ്മുടെ വെറൈറ്റി ഫുഡ് ആണ് ഫുഡ് ആണ് നമ്മളിപ്പം എവിടെ എന്ത് കല്യാണത്തിന് ചെന്നാലും എന്ത് പെരുന്നാളിന് ചെന്നാലും എവിടെ ചെന്നാലും നമുക്കിപ്പം എപ്പം എവിടെയും കിട്ടുന്നതാണ് ബിരിയാണി എന്ന് പറയുന്നത് അതെന്താണ് പറയുക നല്ല റൈസ് ആണ് നമ്മൾ ഇങ്ങനെ റൈസും ചിക്കനും എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന സംഭവമാണ് ബിരിയാണി എന്ന് പറയുന്നത് അതിഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല എന്താണ് നല്ലൊരു എന്താണ് പറയുക എവിടെപ്പോയാലും നല്ല എൻജോയ്മെൻറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആണ് ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും എന്ത് പ്രോഗ്രാം എന്ത് പെരുന്നാൾ വന്നോട്ടെ എന്ത് ആഘോഷങ്ങൾ വന്നാലും നമുക്കവിടെ മെയിൻ ആയിട്ട് ബിരിയാണി തന്നെയാണ് എല്ലാവരും സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ അപ്പോൾ തന്നെ എന്താണ് പറയുക ബിരിയാണിക്ക് തന്നെ ഇപ്പം കുറേ ഫാൻസ് തന്നെയുണ്ട് എവിടെച്ചെന്നാലും നമുക്ക് ബിരിയാണി കാണാൻ പറ്റും അത് മാത്രമല്ല ഇത് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആണ് ബിരിയാണി എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനും സാലഡും എല്ലാം കൂടെയും അച്ചാറൊക്കെ ഇങ്ങനെ എല്ലാം കൂടെ കൂടുന്ന ഒരു ഫുഡ് ആണ് ബിരിയാണി എന്ന് പറയുന്നത് അത് തിന്നുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ആണ് ബിരിയാണി ഇതുകൊണ്ടാണ് എനിക്ക് ബിരിയാണിയോട് ഇത്ര താല്പര്യം